ഇന്ത്യയിലെ ജോലികൾക്ക് എന്ന് പറയുമ്പം കുറേ അധികം ഉണ്ട് പക്ഷേ നമ്മളൊന്നും കണ്ടുപിടിക്കാൻ അതിന് തയ്യാറാകുന്നില്ല ഇന്ത്യേ കോമൺലി ഇച്ചിരി വളരാൻ എളുപ്പം ഉള്ള ഒരു സംഭവം എന്ന് പറയുമ്പം ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഇവിടെ ഉള്ളവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പം കുറച്ച് പൈസക്ക് കുറേ സാധനങ്ങൾ എന്നാണ് യൂട്ടിലിറ്റീനെ പറ്റി അവർക്കൊരു അവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു കൊടുപ്പിനെയാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് പൈസക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ച് എന്താ കുറച്ച് പൈസയ്ക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടാവുക അതാണ് മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി അപ്പം അതിനെ നേരിടുന്ന വെല്ലുവിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പം ഒരു ഇപ്പം ഇപ്പ പണ്ടത്തെ ജോലികൾക്കെന്നൊക്കെ പറയുമ്പം ഇപ്പം ഒരു പരിധി വരെ അത് മെഷീൻസ് കൺട്രോൾ ചെയ്തു ഏ അത് അത് തന്നെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പം അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുമ്പം പിന്നെ എന്ന് പറയുമ്പം ഇതേപോലെ ചെറിയ ജോലികൾക്ക് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ടാവുന്നത് അവർക്കെന്തോ കുറച്ചിലാണെന്ന് വിചാരിക്കുന്നത് അതൊക്കെ തന്നെയാണ് അതിന്റേതായ ഒരു വലിയ ഒരു പ്രശ്നം